അതെല്ലോ ആ ആ നിങ്ങൾക്ക് മാറി ആ മാറി വാങ്ങാനായിട്ടായിരുന്നോ ആ ആ ആ അതിൻ്റ ഡീറ്റെയ്ൽസറിയാൻ വേണ്ടി വിളിച്ചതാണോ ആ അതെ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റ റേറ്റ് ഇപ്പോൾ ഒരു പവന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഒരു പവന് ആ നിങ്ങളുടെ പാദസരം എത്ര പവനുണ്ട് രണ്ട് അതേ തൂക്കത്തിലുള്ള പാദസരം തന്നെയാണോ നിങ്ങൾ നോക്കുന്നത് ആ ആ ഓക്കെ ആ അപ്പം നമുക്ക് ഇപ്പം ആ അപ്പം നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ട് പല ഡിസൈനിലും പല തൂക്കത്തിലും ഉള്ള പാദസരങ്ങളുണ്ട് നിങ്ങക്ക് എന്നാൽ വാ ഒത്തിരി പൊലിമ ഉള്ള പാദസരം വേണമെന്നില്ലല്ലോ ഇച്ചിരി കട്ടിയുണ്ടാകണമെന്ന് അല്ലെ ഉള്ളു അതോ ആ അപ്പം ഇവിടെ പലതരത്തിലുള്ള പാദസരങ്ങൾ ഉണ്ട് നല്ല കട്ടിയിൽ നല്ല ഭംഗി ഉള്ള ഡിസൈനുള്ള പാദസരങ്ങൾ ഉണ്ട് അപ്പം നമ്മുടെ ഈ ഡിസൈനിൻ്റെ അനുസരിച്ച് കുറച്ച് പണിക്കൂലിയിൽ ഒക്കെ വ്യത്യാസം വരും കാരണം ചിലത് നമ്മൾ ഹാൻഡ്മെയ്ഡ് ആണ് ചിലത് മെഷിൻ ആ മെഷിൻ വർക്കായത് കൊണ്ടും പിന്നെ നമുക്ക് ഇപ്പം തന്നെ സിങ്കപ്പൂർ സിങ്കപ്പൂർ അത് സിങ്കപ്പൂർ ഡിസൈനുണ്ട് അങ്ങനെ പല ഡിസൈൻസ് ഉണ്ടല്ലൊ അപ്പം അതിനൊക്കെ കുറച്ച് വ്യത്യാസം വരും നമ്മൾ ഈ പണിക്കൂലിയിൽ വ്യത്യാസം വരും അപ്പം നിങ്ങളും ആ നിങ്ങളൊന്ന് നേരിട്ട് വരുവാണെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ചും കൂടി നന്നായി പറഞ്ഞ് തരാൻ പറ്റുമായിരുന്നു ആ ഞാൻ ഇത് ഈ നമ്മുടെ സ്വർണ്ണക്കട സ്വർണ്ണക്കട അറിയാമോ എവിടെ ആണ് ഇരിക്കുന്നത് എന്ന് അടിമാലിയിൽ ആണ് സ്വർണ്ണക്കട ആ ഇപ്പം ആ അപ്പം നിങ്ങൾ അടിമാലിയിൽ ഒരു ദിവസം വരികയാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാനിതൊന്ന് എല്ലാം ഒന്നു കാണിച്ച് തരാമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് ഏത് വേണമെന്നുള്ളത് അപ്പം നോക്കുമ്പോൾ ഏത് വേണമെന്നൊക്കെ നോക്കുന്നതിന് നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ടാണെങ്കിൽ ഇത് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് അധികവും ആ അപ്പം ആ വാ അങ്ങനെയൊന്ന് വരികയാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരാമായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്നാ ആ എന്നാ എന്നാ സമയം ഉള്ളതെന്ന് അനുസരിച്ച് നിങ്ങളും ഒന്ന് നോക്കുക പിന്നെ ഞങ്ങൾ നീ സ്വർണ്ണത്തിൻ്റ റേറ്റ് അനുസരിച്ച് ഇനി ഇപ്പം അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വന്ന് ഇത് പണിത് തരണമെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് നമുക്ക് ഇവിടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതിനെ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന മോഡൽ ഇപ്പം നിങ്ങൾ വന്ന് കഴിയുമ്പോൾ ആ ആ അതെ നിങ്ങൾ ഇപ്പം വന്ന് കഴിയുമ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മോഡലിലുള്ളത് നിങ്ങൾക്ക് ഇപ്പം കാലിന് പാദത്തിനുള്ളത് കിട്ടിയില്ല എന്ന് വെച്ചോ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ അതിൻ്റെ അളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഞങ്ങൾ ആ ഞങ്ങളത് പണിത് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരുന്നതാണപ്പം നിങ്ങൾ എന്നാണോ ഇത് നമ്മളെ പണിയാനേൽപ്പിച്ചത് ആ ദിവസം ഉള്ള റേറ്റ് നമുക്ക് തന്നാൽ മതി ഇനിയിപ്പ സ്വർണ്ണത്തിൻ്റെ വില കൂടുകുയാണെങ്കിൽ പോലും ആ വില കൂടിയാലും നിങ്ങളെന്ന് തരുന്നോ ആ റേറ്റിൽ തന്നെ ഞങ്ങൾ സ്വർണ്ണം ഇത് തിരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആ അപ്പം ആ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇപ്പം പണിത് വേറെ മേടിക്കാൻ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഡിസൈൻ കിട്ടിയില്ല നിങ്ങളുടെ കാലിൻ്റെ പാകത്തിന് കിട്ടിയില്ലാന്നോർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട ആ ഡിസൈൻസ് കൊണ്ട് വന്നാൽ ഞങ്ങളത് പണിത് തരാം ആ അപ്പം ഹാ പിന്നെ എന്നാ നിങ്ങൾക്ക് അന്ന് ഈ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്ക് വന്ന് നോക്കി ഇവിടെ എല്ലാ തരത്തിലുള്ള പാദസരങ്ങളും അവൈലബിൾ ആണ് അതെ എല്ലാ തരത്തിലുള്ള പാദസരങ്ങളും അവൈലബിൾ ആണ് നിങ്ങൾ ഒരു ദിവസം വന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എന്നാ അത് എങ്ങനെ ആണെന്ന് ഒക്കെ നോക്കി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം അപ്പം വരാൻ പറ്റുവെങ്കിൽ എത്രയും പെട്ടെന്ന് വാ ഇനി ഇപ്പ സ്വർണ്ണത്തിൻ്റെ വില ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുവാല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണവായിട്ട് വരാൻ നോക്കണം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർലൊന്ന് വിളിച്ചാൽ മതിയെ ആ ഓക്കെ